ഹലോ ആ ഗവണ്മെൻ്റ് എഞ്ചിനിയറിംഗ് കോളേജ് മാനന്തവാടിയാണ് ആ ഓക്കെ എല്ലാ കോഴ്സിനും അത്യാവശ്യം സ്കോപ്പുണ്ട് ഗേൾസിനാവുമ്പം സിവിൽ എഞ്ചിനിയറിംഗിന് ആയിരിക്കും കൂടുതലും സ്കോപ്പ് ഉണ്ടാവുന്നത് കുട്ടിക്കേതാണ് താല്പര്യം ഏതാണ് അതെന്താ പാരാമെഡിക്കല് നിന്നും മാറിയിട്ട് എഞ്ചിനിയറിംഗിന് കൊടുത്തത് ആ ആ ആ

ഫീസ് ഒരു വർഷത്തേക്ക് പന്ത്രണ്ടായിരം രണ്ട് വർഷം കൂടി ഡിപ്ലോമ കോഴ്സാണ് നമുക്കിവിടെ ഉള്ളത് എല്ലാ എല്ലാ എഞ്ചിനിയറിങ്ങിനും ഡിപ്ലോമ കോഴ്സാണ് ഉള്ളത് ഒരു വർഷത്തേക്ക് പതിനാറായിരം രണ്ട് വർഷത്തേക്ക് മുപ്പത്തി രണ്ടായിരം പിന്നെ ട്രെയിനിംഗ് ഉണ്ട് ഒരു ഒരു വർഷം ക്ലാസും ഒരു വർഷം ട്രെയിനിംഗും അങ്ങനെ ആണ് ഉള്ളത് അതു കഴിഞ്ഞിട്ട് പ്ലേസ്മെൻ്റ് അസിസ്റ്റ് ചെയ്തു തരും പ്ലേസ്മെൻ്റില്ല അല്ലാണ്ട് നമ്മൾ ജോലി ആക്കിത്തരില്ല അസിസ്റ്റ് ചെയ്തു കൊടുക്കും എങ്ങനെ ആ വയനാട്ടിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ വയനാട്ടിൽ കിട്ടും പക്ഷെ വയനാട്ടിൽ അങ്ങനെ നമുക്ക് വലിയ വലിയ ഇതൊന്നുമില്ലല്ലോ പുറമെ ആണെങ്കിൽ അല്ലെ കുറച്ചുകൂടി അതായത് സാലറിയും കൂടുതലായിട്ടും എല്ലാം പുറത്തേക്കാണല്ലൊ അപ്പോൾ പുറത്തേക്ക് നോക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വയനാട്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടെങ്കിൽ വയനാട്ടിൽ കിട്ടാൻ ഉള്ള ചാൻസും ഉണ്ട് അഡ്വാൻസ് അയ്യായിരം പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ എക്സാം അതായത് ഫസ്റ്റ് ഇയറിലെ എക്സാം തീരുമ്പോഴേക്കും ഫുൾ അടച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എക്സാം തുടങ്ങുന്നയിനു മുന്നെ ഫുൾ അടച്ചിട്ടുണ്ടെങ്കിലെ എക്സാം എഴുതിക്കുള്ളൂ എക്സാമ് കഴിഞ്ഞിട്ടാണ് പ്ലേസ്മെൻ്റ് വരിക ട്രെയിനിംഗ് കഴിഞ്ഞപാടെ എക്സാമാണ്

ആ അതെ അതെ അതെ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പാരൻ്റ്സിനേയും കൂട്ടിയിട്ട് വന്നാൽ മതി അഡ്മിഷൻ എടുക്കാൻ വന്നാൽ മതി വരുമ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയാണ് സ്റ്റാർട്ടിങ്ങ് വൈകുന്നേരം ഒരു മൂന്നര വരെ എസ് എസ് എൽ സി പ്ലസ്ടു കോപ്പി വേണം ഒറിജിനലും വേണം പിന്നെ ആധാർ കാർഡ് പിന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ വരണം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ ഹോസ്റ്റൽ സൗകര്യം ഇവിടെ അടുത്തുതന്നെ ഉണ്ട് ഹോസ്റ്റലുണ്ട് നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് ഹോസ്റ്റലുണ്ട് പിന്നെ നിങ്ങൾ ഗവണ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഒക്കെ ഫ്രീയാണ് ഹോസ്റ്റൽ ഫീസ് അയ്യായിരം രൂപ വരും മാസം ഫുഡും എല്ലാംകൂടി എന്നാ ഓക്കെ നീ ഉണ്ടെങ്കിൽ പിന്നെ അച്ഛനെയോ അമ്മേനെയോ കൂട്ടിയിട്ട് വന്നാൽ മതി ഓക്കെ ശരി